ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേനൽക്കാലം ആയാൽ വെള്ളത്തിനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടിയിലൊക്കെ വന്നിട്ടാണ് വെള്ളം എല്ലാവരും എടുക്കുന്നത് അല്ലാണ്ട് വണ്ടി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പഞ്ചായത്ത് കിണറാണ് ഉള്ളത് ആ കിണറ്റിലാണെങ്കിൽ വെള്ളം ഉണ്ടാവില്ല കുറേ മോട്ടറും ഉണ്ട് അതിൽ ആവുന്നോല് ആവുന്നോല് അടിച്ചിട്ട് പോകും നമുക്ക് വെള്ളം ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പലതരം പഞ്ചായത്ത് പൈപ്പ് മറ്റെ പൈപ്പ് എന്ന് പറഞ്ഞത് പോലെ അത് ഒന്നരാടം രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരുള്ളൂ പിന്നെ അതിനാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു ജപ്പാൻ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളം ഉള്ളതുകൊണ്ട് അത് ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് കുറവുണ്ട് പിന്നെ കിണറ്റിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പം മഴ കുറച്ച് കിട്ടിയത് കൊണ്ട് കുറച്ച് വെള്ളം ഉണ്ട് അല്ലാണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേനൽക്കാലം ആയാൽ പിന്നെ വെള്ളം തന്നെ ഉണ്ടാവില്ല വെള്ളത്തിന് ഭയങ്കര ക്ഷാമം ആണ് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ പോയി വെള്ളമെടുക്കും ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ വെള്ളം വരും അങ്ങനെയാണ് ഞങ്ങൾ വെള്ളം ഉപ ഉപയോഗിക്കുന്നത് വെള്ളം